നമ്മുടെ പ്രദേശത്ത് പണ്ട് കീഴ്ജാതിക്കാരും മേൽജാതിക്കാരും എന്നുള്ള വ്യവസ്ഥകളുണ്ടായിരുന്നു അവർ കീഴ്ജാതിക്കാരെ ഒരു കാര്യത്തിനും നമ്മളെ ഒന്നിനും അടുപ്പിക്കില്ലായിരുന്നു മേൽജാതിക്കാർക്കാണ് എല്ലാത്തിനും മുൻഗണന നമ്മൾ സ്കൂളിൽ ചെന്നാലും നമ്മളെ തറയിലാണ് ഇരുത്തി പഠിപ്പിക്കാറുള്ളത് അതുപോലെ തന്നെ പെൺകുട്ടികളെ പ അന്നത്തെ കാലത്ത് ആരും പഠിപ്പിക്കാനൊന്നും തയ്യാറായിരുന്നില്ല പെൺകുട്ടികളാണ് ജനിക്കുന്നതെന്ന് അറിഞ്ഞാൽ അവരുടെ വായിൽ നെല്ലിട്ട് കൊടുത്ത് അവരെ നശിപ്പിക്കുകയായിരുന്നു അന്നത്തെ ഇത് സാമൂഹ്യപ്രവർത്തകർ ഇപ്പം അതിനെല്ലാത്തിനും ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട് ഇപ്പം ആണും പെണ്ണും എന്നുള്ള രീതിയിലുള്ള എല്ലാ എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഇതാണ് മേല്ജാതിക്കാർക്ക് മാത്രമേ അന്ന് അമ്പലങ്ങളിൽ പ്രവേശനം ഉള്ളായിരുന്നു കീഴ്ജാതിക്കാർക്ക് അമ്പലങ്ങളിൽ പ്രവേശനം ഇല്ലായിരുന്നു അതുപോലെ തന്നെ മേല്ജാതിക്കാർ നടന്ന് വരുമ്പോൾ കീഴ്ജാതിക്കാർ വഴിയിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ അവിടുന്ന് മാറി ഒരുപാട് സ്ഥലത്ത് മാറി നിന്ന് അവർക്ക് പോകാനുള്ള വഴി നമ്മൾ മാറി നിന്ന് കൊടുക്കണം അവർ പോയതിന് ശേഷമേ നമുക്ക് ആ വഴിയിൽ കൂടി പിന്നെ പോവാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ആഹാരം കഴിക്കാനായിരുന്നാലും നമ്മൾ എവിടെയെങ്കിലും ചെന്ന് എന്തെങ്കിലും ഒരാവശ്യത്തിന് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ അവർ മാറ്റി നിർത്തുകയും അവർക്കാണ് അതിന് മുൻഗണന കൊടുക്കുകയും നമ്മളെ പിന്നീട് വെളിയിൽ നിർത്തി നമുക്കെന്തെങ്കിലും തരണമെന്ന് തോന്നിയാൽ അവർ വെളിയിൽ നിർത്തി വാഴയിലയിലോ ചിരട്ടയിലൊ ഒക്കെയാണ് നമുക്കെന്തെങ്കിലും ആഹാരങ്ങൾ തന്നെ തന്നിരുന്നത് അത് തന്നെ എല്ലാം ഇപ്പം സാമൂഹ്യപ്രവർത്തകർ ആണ് അതെല്ലാം മാറ്റി എടുത്തത് അമ്പലങ്ങളിൽ പോവാനുള്ളതും എന്തൊരു ഇതിൻ്റെ കാര്യത്തിലായിരുന്നാലും അപ്പം അവരാണ് നമ്മളെ എല്ലാത്തിനെയും മാറ്റി നിർത്തി നമുക്ക് അതിനുള്ള ഒരു ഇത് തന്നിട്ടുള്ളത് ഇപ്പം കീഴ്ജാതിയാണെന്നുള്ള രീതിയിൽ പ്രഗൻസി ഗർഭിണികളായ സ്ത്രീകളെ നേരത്തെ പെൺകുട്ടികളാണെന്നത് അറിഞ്ഞാൽ തന്നെ അവർ വയറ്റിൽ വെച്ച് തന്നെ അതിനെ ഇല്ലാതെ ഇല്ലായ്മ ചെയ്യുകയിരുന്നു അതിനെല്ലാം ഇപ്പം ഈ സാമൂഹ്യപ്രവർത്തകരാണ് എല്ലാം മാറ്റി നല്ലൊരു നിലയിൽ ആക്കി എല്ലാവർക്കും ആണിനും പെണ്ണിനും എല്ലാം നല്ല രീതിയിലുള്ള പഠനം ആണിനും പെണ്ണിനും ഒരു പോലെയുള്ള പഠനങ്ങളും എല്ലായിടത്തും നമുക്ക് പോവാനും അമ്പലങ്ങളിൽ പോവാനായാലും ഏത് സ്ഥലത്ത് നമുക്ക് അവർക്കൊപ്പം നമുക്ക് പോവാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നത് ഈ സാമൂഹ്യപ്രവർത്തകരാണ്